സഞ്ചാരം ഒരു വികാരമാണ് അതു പല പല സംസ്കാരങ്ങൾ പഠിക്കുവാനും പല പല രുചിക്കൂട്ടുകൾ തിരിച്ചറിയുവാനും മറ്റു ഭാഷകൾ സംസാരിക്കുവാനും ആൾക്കാരെ മനസ്സിലാക്കുവാനും ഭാരങ്ങൾ കുറയ്ക്കുവാനും ആയിട്ടുള്ള യാത്രയാണ് സഞ്ചാരം സഞ്ചരിക്കുന്നവർ ഏറെയാണ് സഞ്ചരിക്കുന്ന വിധങ്ങളും പലവിധത്തിലാണ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി വരുന്നു നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെയ്ക്കാൻ പറ്റുന്ന പല പല ആൾക്കാരെ കാണാൻ പറ്റുന്നു പല സംസ്കാരങ്ങൾ തേടാൻ പറ്റുന്നു പല രുചികൂട്ടുകൾ തിരിച്ചറിയാൻ പറ്റുന്നു പ്രകൃതിയുടെ വിസ്മയകരമായ അവരുടെ ഒരുക്കി വെച്ചേക്കുന്ന പ്രകൃതി ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പ്രകൃതിയാൽ ചില അത്ഭുതങ്ങൾ കാണാൻ പറ്റുന്നു ഇതെല്ലാം സഞ്ചാരത്തിൻ്റെ പ്രത്യേകമായ വിഭവങ്ങളാണ് പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടിത്തരുന്നു മഞ്ഞു വിരിച്ചതുപോലെയുള്ള മലപ്രദേശങ്ങളും തിങ്ങി നിറഞ്ഞ കാടുകളും അതിൽ സ്വതന്ത്രമായി വിവരിക്കുന്ന പൂമ്പാറ്റകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു ഈ പൂമ്പാറ്റകൾ മറ്റു മൃഗങ്ങളും എങ്ങനെയാണ് ആവാസ വ്യവസ്ഥയിൽ സഞ്ചരിക്കുന്നത് എന്നും ഇവരെങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതെന്നും മനുഷ്യൻ ഇവരുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാം നമുക്ക് വ്യക്തമാകുന്നു സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ വേറെ ഉണ്ടാകില്ല ഒരു തവണയെങ്കിൽ ഒരുതവണ എല്ലാം മറന്ന് ആഘോഷിച്ച് ഉല്ലസിച്ച് സഞ്ചരിക്കാത്ത ആൾക്കാരും ഉണ്ടാവില്ല വിദേശികൾ നമ്മുടെ നാടിനെ തേടി ഇങ്ങടേക്ക് ഇവിടേക്ക് വരുന്നു അവരവരുടെ സമ്പാദ്യങ്ങൾ ഒരു വിഹിതം മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ടു വരുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവി നമ്മുടെ സംസ്കാരങ്ങളും മറ്റ് മിത്തുകളും എല്ലാം തിരിച്ചറിയാനും അവരുടെ സ്ട്രസുകളും ജോലിഭാരങ്ങളും എല്ലാം കുറയ്ക്കുവാനും വേണ്ടിയാണ് അങ്ങനെ ഒരുപാട് വിദേശികളെ പരിചയപ്പെടുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും പറ്റിയിട്ടുണ്ട് അവർ നമ്മുടെ ഭാ ഭാഷകൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എത്രയും ദൈവത്തിൻറെ സ്വന്തം നാടായ കേരളത്തിൽ എത്രയെങ്കിലും വിദേശികളാണ് വന്നു പോകുന്നത് പ്രത്യേകിച്ച് പ്രകൃതിയെ ആസ്വദിക്കുന്നവർ കാലാവസ്ഥയെ സ്നേഹിക്കുന്നവർ നമ്മുടെ ചുറ്റും നോക്കിയാൽ വളരെ വളരെ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്

സഞ്ചാരികളുടെ നാടാണ് കേരളം മണ്ണും വെള്ളവും പാറയും കുന്നും മലകളും ആഹാരങ്ങളും വൈവിധ്യമാർന്ന മത്സ്യങ്ങളും എല്ലാം കൂട്ടിയിണങ്ങുന്നതാണ് കേരളത്തിൻ്റേത് പിന്നെ പുരാതനങ്ങളായ സംസ്കാരങ്ങളും പ്രാചീനമായ ആശ്ചര്യങ്ങളും ഓരോരോ സംസ്കാരത്തിൻറെ ഭാഗമായി നമ്മൾ അതിനെ മാറ്റി കൊണ്ടേയിരിക്കുന്നു യാത്ര ചെയ്യാത്തവൻ തന്റെ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്നവനായിരിക്കും അവന്റെ മനസ്സോ ഇടുങ്ങിയതും എന്നാൽ സഞ്ചരിക്കുന്നവൻ അവൻറെ ഹൃദയം വിശാലമാണ് എത്രത്തോളം അവന് സഞ്ചരിക്കാൻ പറ്റുമോ അത്രത്തോളം സഞ്ചരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ മാനസിക വികാരങ്ങളിൽ നിന്ന് മാറ്റിനിർത്തുവാൻ ഏറ്റവും അനിവാജ്യമായ ഘടകം